എൻ്റെ ശേഖരത്തിലേക്ക് ഏതെങ്കിലും നാണയങ്ങള് ശേഖരിക്കുന്ന ഒരു സ്വഭാവമാണ് എന്റേത് ഉണ്ടായിരുന്നു ഞാൻ പഴയകാല നാണയങ്ങളെല്ലാം ശേഖരിച്ചുവച്ചിട്ടുണ്ട് അന്പതു പൈസയുടെ ഇരുപത്തിയഞ്ചു പൈസയുടെ പത്തു പൈസയുടെ ഇരുപതു പൈസയുടെയൊക്കെ നാണയങ്ങള് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കഴിഞ്ഞ ഇടയ്ക്കു പിൻവലിച്ച ആ ആയിരം രൂപയുടെയും ഇരുനൂറ് രൂപയുടെയും ഒക്കെ നാണയ പൈസ തുട്ടുകൾ എൻ്റെ കയ്യിലുണ്ട് ഇത് എങ്ങനാ ഇതിനു ശേഖരിക്കുന്നതിനു പ്രത്യേകിച്ചു മാനാദണ്ഡങ്ങളോ പ്രമേയങ്ങളോ ഒന്നും എനിക്കില്ല എൻ്റെ ഇഷ്ടങ്ങള് എനിക്കിതൊക്കെ ശേഖരിക്കാനും ഇതൊക്കെ സംരക്ഷിക്കാനും എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ ഇനി വളർന്നുവരുന്ന തലമുറയിലെ പിള്ളേർക്ക് ഇതൊക്കെ കാണണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ട് എൻ്റെ പിള്ളേർക്കൊരു പ്രോജക്റ്റോ ഒരു അസൈൻമെന്റുകളോ ഒക്കെ വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഇതെടുത്തു സൂക്ഷിച്ചുവയ്ക്കുവാനും അവർക്ക് ഈ ആവശ്യങ്ങള് വരുമ്പോള് കൊടുക്കാനും ഒക്കെ ഇതു ഞാൻ ശേഖരിച്ചുവച്ചിരിക്കുന്നത് ഇത് മക്കളുടെ ഭാവിയില് മക്കൾക്ക് ഇപ്പോള് ഇനിയിപ്പോള് വരുന്ന കാലങ്ങളിലൊക്കെ പ്രോജക്റ്റ് അസൈൻമെന്റ് വർക്കുകളൊക്കെ ഒത്തിരി വരും അന്നേരം ഇതൊക്കെ കാണിക്കണം എന്നു പറയുമ്പോൾ അവർക്കു കാണിക്കാൻ എളുപ്പത്തിനു വേണ്ടിയാണ് ഞാനീ നാണയങ്ങളൊക്കെ സൂക്ഷിച്ചുവച്ചിരിക്കുന്നത്